ഓ നമ്മുടെ സാങ്കേതിക വിദ്യ സാമൂഹിക മാധ്യമങ്ങളൊക്കെ നമ്മുടെ നൃത്തപരിശീലനത്തിന് ഒരുപാട് പ്രയോജനമാണ് നൽകിയിട്ടുള്ളത് മറ്റേതെന്ന് വെച്ച്ക്കഴിഞ്ഞാൽ സാധാരണ നമ്മളെങ്ങെനെയാണ് പഠിക്കാൻ പോവൽ എന്നും ഡെയിലി ക്ലാസ്സ് നടക്കുന്നു അവിടേക്ക് കുട്ടികളെല്ലാം എത്തുന്നു പക്ഷേ അതിൽ പോവാൻ പറ്റുന്ന കുട്ടികൾക്കു മാത്രമേ പങ്കെടുക്കാൻ പറ്റു ആഗ്രഹമുള്ള കുട്ടികൾക്കെല്ലാം അതിൽ പങ്കെടുക്കാൻ പറ്റുന്നില്ല പക്ഷെ നമ്മുടെ ഈ സോഷ്യൽ മീഡിയ സാമൂഹിക മാധ്യമം വന്നത് വഴി നമുക്ക് ധാരാളം പ്രയോജനങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എല്ലാ കുട്ടികൾക്കും അതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരവാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതല്ലേ അപ്പം ഒരുകുട്ടി അവിടെ മാറ്റി നിർത്തപ്പെടുന്നില്ല ഒരു ഫോണും അത്പോലെ തന്നെ നെറ്റും കയിലുണ്ടെങ്കിൽ എല്ലാവർക്കും ഡാൻസ് നൃത്തം പഠിക്കാൻ സാധിക്ക്യാണ് അതുപോലെതന്നെ എന്താ ടീച്ചേഴ്സൊക്കെ ആവാൻ പല പല ഗുരുക്കെന്മാരുടെയും വീഡിയോസ് നമുകത്തിലൂടെ കിട്ടുന്നുണ്ടല്ലേ എത്തിപ്പെടാൻ പറ്റാതെ വലിയ വലിയ ഗുരുക്കന്മാരുടെ അടുത്ത് പോയി പഠിക്കണമെന്ന ആഗ്രഹമുള്ളവർക്ക് അവരുടെ യൂട്യൂബ് ചാനൽ വഴി നമുക്ക് നൃത്തം പരിശീലിക്കാൻ സാധിക്കുന്നുണ്ട് അതുപോലെതന്നെ അപ്പോൾ കേരളത്തിലുള്ള ഒരു കുട്ടിക്ക് കർണാടകയിൽ പോയിട്ട് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമുക്കത് ഓൺലൈനിലൂടെ സാധ്യമാണ് അപ്പോൾ അത്രയും വളർച്ചയാണ് ഇന്ന് സാങ്കേതിക വിദ്യ വഴി നമ്മുടെ നൃത്തപരിശീലനത്തിലക്കെ വന്നോണ്ടിരിക്കുന്നത് അപ്പം നമുക്കറിയാം സിലിബ്രിറ്റീസിനും സിനിമ നടിമാരുടെ കിഴിൽ ഒക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും പക്ഷെ നമുക്ക് നേരിട്ടിട്ട് അവിടെപ്പോയി പഠിക്യാന്ന് പറയുന്നത് സദ്യമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല പക്ഷെ ഓണ്ലൈന് വഴി നമുക്കത് സാധ്യമാണ് എങ്ങെനെ അവർക്ക് സൺഡേ ക്ലാസുകൾ ഞാറ് ഞായർ ശനി ഒഴിവുള്ള സമയങ്ങളിലെല്ലാം നമുക്ക് ഓൺലൈൻ ക്ലാസ്സിലിരുന്ന് അതുവഴി നൃത്തം പരിശീലിക്കാനൊക്കെ സാധ്യമാണ് അപ്പം നമുക്ക് ഡാൻസിൻ്റെ എല്ലാ അറിവും കേരള കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചുന്ന് പറയുന്നത് പോലെത്തന്നെ നമുക്ക് അ ആ എൻ്റെ ഗുരുനാഥ എന്നു പറഞ്ഞുള്ളാരു നൃതത്തിൽ പേരുകെട്ടൊരാളാണെന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമേ ഉള്ളു

ഈ ഒരു സാമൂഹിക മാധ്യമം ഓൺലൈനായിട്ട് നമുക്ക് നൃത്തം പരിശീലനം തരുന്നത് വഴി എല്ലാ കുട്ടികൾക്കും നൃത്തം പഠിക്കാൻ അല്ലെങ്കിൽ താല്പര്യമുള്ള കുട്ടികൾക്കു മൊത്തം നൃത്തം പഠിപ്പിക്കാനുവല്ലെങ്കിൽ പഠിക്കാനും അതേറ്റവും നല്ലൊരു പ്ലാറ്റഫോമാണ് അല്ലെങ്കിൽ ഏറ്റോം ഉന്നതമായിട്ട് നിൽക്കുന്നൊരു വേദി തന്നെയാണ് അപ്പം സാങ്കേതിക വിദ്യ അല്ലെങ്കിൽ സാമൂഹിക മാധ്യമം വഴി ഇതൊരുപാട് കുട്ടികൾക്ക് നൃത്തം പരിശീലിപ്പിക്കുന്നതിന് ഒരുപാട് സഹായകം ആവുക തന്നെയാണ് ചെയ്യുന്നത്